ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ സാർ സാറെ എക്സ്ചഞ്ചോ അങ്ങനെ എന്തേലും ആണോ സാർ ആ അല്ല ആ ഓക്കെ ആ ഇരുന്നോട്ടെ സാർ സാർ അപ്പം എങ്ങനെയാണ് ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണ് ഓണത്തിന് നമുക്ക് ഡൌൺ പേയ്മെൻറ്റില് ആ നമുക്കപ്പം ആരുടെയാന്ന് പറഞ്ഞാൽ സാർ നമുക്ക് ഡൌൺ പേയ്മെൻറ്റിൽ തന്നെ നല്ലൊരു കുറവുണ്ട് നമുക്കിപ്പം ഒരു എന്താ പറയാ കാറിന് നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ലോണ് കിട്ടും ആ നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ഇപ്പോൾ ഐ ട്വൻറ്റി ആണെങ്കിൽ ഇപ്പം എട്ട് ലക്ഷത്തി എഴുപത്രണ്ടായിരം രൂപയാണ് വണ്ടിക്ക് ഇതിൽ ഓപ്ഷന് വരുന്നത് അപ്പം അത് നമുക്കൊരു തൊണ്ണൂറായിരം രൂപ തന്ന് കഴിഞ്ഞാൽ അതിൽ രണ്ട് പവർ വിൻഡോ ഉണ്ടാവും സാർ എ സി ഉണ്ടാവും പിന്നെ എയർ ബാഗ് രണ്ടില് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ ഫ്രണ്ടിൽ പിന്നെ അലോയിവീലും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ സ്റ്റീരിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല

അതിപ്പം നിങ്ങൾ ലോ ഓപ്ഷനിൽ എടുത്തിട്ട് ചെയ്യുന്ന കസ്റ്റം ചെയ്യുന്നതായിരിക്കും സാർ നല്ലത് പൈസ ക്യാഷിൽ നല്ല വ്യത്യാസം വരും നമുക്കിപ്പോൾ ഒരു മുപ്പത് രൂപ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നാല് പവർ വിൻഡോ ആ നാല് എയർ ബാഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്റ്റീരിയോയും കാര്യങ്ങളും റിവേഴ്സ് ക്യാമറ സെൻസറ് കാര്യങ്ങൾ എല്ലാം കൂടെ എട്ട് ലക്ഷത്തി എഴുപത്രണ്ടായിരം രൂപയാണ് വരുന്നത് അതിന് ഒരു ഒൻപതിനായിരത്തി എഴുപത് ച്ചെ ഒൻപതിനായിരത്തി അല്ല ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം ആ ഒരു ലക്ഷത്തിൻ്റടുത്ത് വരും ആ സാർ അത് എടുത്തിട്ട് കസ്റ്റം ചെയ്തേര് ആ നമ്മളന്നെ അറേഞ്ച് ചെയ്തേരും ചെയ്തേരും സാറിന് ഇപ്പം കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂവ് റെഡ് വൈറ്റ് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ സിൽവർ വരുന്നുണ്ട് ആ ആ അലോയ് ഒക്കെ അഡീഷണൽ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് അത്യാവശ്യം വരും അറുപത് തെർട്ടീൻ തൗസൻഡ് ഒക്കെ വരുന്ന്ണ്ട് കമ്പനിയോട് ചോദിക്ക്

തൊണ്ണൂറായിരം രൂപ തന്നാൽ മതി സാർ ലോ ഐ പില് ചെയ്ത് തരാം സാറിന് ആയിക്കോട്ടെ ഓക്കെ എന്നാൽ